ഹലോ ഞാൻ ഒരു വയർലെസ്സ് ഹെഡ്ഫോൺ ഒരു ജോഡി ഓർടർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അ ത് ഞാൻ പറഞ്ഞത് നാളെ കഴിഞ്ഞ് കിട്ടണമെന്നായിരുന്നു ഇതുവെരെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയില്ല ഞാൻ അത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് എനിക്ക് അത് നാളെ കഴിഞ്ഞ് തന്നെ വേണം എനിക്ക് അത് അത്യാവശ്യമായിരുന്നു സോ അതിൻ്റെഒരു അത് എവിടെ ആയി എന്താണ് അതിൻ്റെ ട്രാക്കിങ്ങ് ഡീറ്റേയിൽസ് അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അത് എനിക്ക് നാളെ കഴിഞ്ഞ് തന്നെ കിട്ടാൻ പറ്റുമോ അതല്ല നിങ്ങൾ എന്നാണ് തരുന്നെ എന്നെനിക്ക് അറിയാനായിരുന്നു ലേറ്റാവുമെങ്കിൽ എനിക്ക് അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഓർടർ ചെയ്യാനാണ് മറ്റെന്നാൾ വരുന്നത് ഇത് എവിടം വരെ ആയി എന്നോ എന്തെങ്കിലും അതിനെപ്പറ്റി അറിയാമോ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റേയിൽസ് ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല എനിക്ക് ട്രാക്കിങ്ങ് കൃത്യമായിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് മറ്റന്നാൾ വരുവാണെങ്കിൽ മറ്റന്നാൾ മിഡ് നൈറ്റാണെങ്കിലും ആം ഒകെ വിത് ദാറ്റ് പഷേയെനിക്ക് മാറ്റന്നാൾ തന്നെ കിട്ടിയിരിക്കണം കാരണം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ വീട്ടിൽ കാണില്ല സോ നിങ്ങൾ അതുകൊണ്ട് വന്നാലും എന്നെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല സോ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ കാണുമോ ഇല്ലയോ എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം മറ്റന്നാൾ തന്നെ എനിക്ക് അത് കിട്ടിയേ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിച്ച് ട്രാക്ക് ചെയ്യാമെന്ന് കരുതിയത് ഓക്കെ അത് മറ്റന്നാൾ തന്നെ കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഓക്കെ